ഞങ്ങളുടെ പ്രദേശത്ത് കാലാവസ്ഥ വിളകളെ വളരെയധികം നന്നായി ബാധിക്കുന്നുണ്ട് കാരണം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിളകളെ നന്നായി ബാധിക്കും പ്രത്യേകിച്ചും പാലക്കാട് ആണ് ഞങ്ങളുടെ പ്രദേശം അതുകൊണ്ട് തന്നെ ചൂടു വളരെ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിളകളെ അത് ഭയങ്കരമായി ബാധിക്കാറുണ്ട് കാരണം മഴയുടെ കുറവ് നമ്മുടെ പ്രദേശത്തുള്ള വിളകൾക്ക് അത് പ്രത്യേകിച്ചുള്ള വിള എന്ന് പറയുന്നത് നെല്ലാണ് നെൽകൃഷിക്ക് ജലം വളരെയധികം ആവശ്യമാണ് ഇപ്പോൾ മഴയുടെ കുറവു മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് വിളകളെല്ലാം ഉണങ്ങി പോവാൻ സാധ്യതയുണ്ട് അതൊരു പ്രത്യേക ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ അതുപോലെ ചില സമയങ്ങളിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം പോലും മഴ പെരുമഴ ഉണ്ടാവാറുണ്ട് അത് വിളകളെ ബാധിക്കാറുണ്ട് കാരണം വിളകൾ വിളയെറുക്കുന്ന സമയത്ത് മഴ കൂടുതലാണെങ്കിൽ മുങ്ങി പോവാനും നശിക്കാനും സാധ്യതയുണ്ട് അതുപോലെ കാറ്റ് കാറ്റടിക്കുമ്പോൾ ഈ കതിര് നെൽക്കതിരുകളെല്ലാം വീണു പോവാനും സാധ്യതയുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ ഈ കൃഷിയെ വളരെയധികം ബാധിക്കുന്നുണ്ട് കൃഷിയെ സംരക്ഷിക്കാൻ പലതരത്തിലുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കാറുണ്ട് അതിൽ ഒന്നാമത് പാലക്കാട് എന്താണ് ചെയ്യുന്നതെന്ന് വച്ചാൽ മലമ്പുഴ ഡാം ആണ് ഉള്ളത് അതില് നിന്നുള്ള ജലസേചനം കാരണം ചൂട് കൂടുമ്പോൾ ജലം പെട്ടെന്ന് വറ്റി പോകും അപ്പോൾ ഡാമിൽ നിന്ന് ജലസേചനസൗകര്യം ഒരുക്കുന്നു അത് കൃഷിയിലേക്ക് ഉപയോഗിച്ച് ജലം നിലനിർത്തുന്നു അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ വെള്ളം മഴ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ വെള്ളം എന്താണ് ചാലുകളിലൂടെ തോട്ടിലേക്ക് ഒഴിക്കിവിടും അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ജലസേചന സൗകര്യങ്ങൾ നമ്മൾ പാലക്കാട് ചെയ്യാറുണ്ട് അങ്ങനെ കൃഷിയെ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ അതുപോലെത്തന്നെ കാലാവസ്ഥയിലുള്ള മാറ്റം മൂലം പല കേടുപാടുകളും നെൽക്കതിരുകൾക്ക് ഉണ്ടാവാറുണ്ട് അതിനിവിടെ നാട്ടുമ്പുറത്തുള്ള പല ജൈവ കീടനാശിനികളും ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നാട്ടിലെ വിളകളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത്